എൻ്റെ നൃത്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രതിബന്ധങ്ങളോ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് നല്ല ഒരു നർത്തകിയൊന്നുമല്ല എങ്കിൽ പോലും ഞാൻ നൃത്തം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് അതായത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായി കാൽ ഉളുക്കുക അത് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രാക്റ്റീസ് ഇപ്പോൾ സ്കൂളുകളിൽ കലോത്സവങ്ങൾക്കൊ അല്ലെങ്കിൽ പരിപാടികൾ ആനുവൽ ഡേ പോലുള്ള ദിവസങ്ങൾ വരുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ വരുമ്പോൾ നമ്മൾ ഗ്രൂപ് ഡാൻസിനോ സിംഗിൾ ഡാൻസിനോ ഒക്കെ തയ്യാറെടുത്തവരാണെങ്കിൽ നമുക്ക് അറിയാം ഒരുപാട് നാൾ നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാക്റ്റീസ് ചെയ്യുകയും കോഡിനേഷൻ വരുത്തുകയും ഒക്കെ ചെയ്യും അപ്പോൾ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അത്രയേറെ സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും കാലം ഇടാത്ത എനർജിയൊക്കെ ഇടുമ്പോൾ നമ്മളുടെ കൈകാലുകൾ വേദനിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതല്ലാതെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നില്ല എങ്കിൽ പോലും നമ്മൾക്ക് കൈകാലുകളുടെ വേദന ആദ്യ കുറച്ച് ദിനങ്ങളിൽ പ്രാക്റ്റീസിൻ്റെ ആദ്യ ആദ്യ കുറച്ച് ദിനങ്ങളിൽ വേദന ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം നമ്മൾ അത്രയും അന്നേരം പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് ഇങ്ങനൊരു പരിപാടി വരുമ്പോൾ മാത്രമാണ് അതല്ലാതെ റഗുലറായി പ്രാക്റ്റീസ് ചെയ്യുന്നവരല്ല നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് വേദനകളൊക്കെ സ്വാഭാവികമായും സംഭവിക്കാറുണ്ട്